നമ്മൾ പലപ്പോഴും നമ്മുടെ ഉദരസംബന്ധമായ രോഗം വന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും കാരണം നമുക്ക് ഓക്കാനം ചർദ്ദി പിന്നെ വയറു വീർക്കുക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പം നമുക്ക് അതിനുള്ള പോംവഴി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുത്തശ്ശിമാരോ നാട്ടുവൈദ്യന്മാരും ചില പോംവഴികൾ ഇതിന് പറഞ്ഞു തന്നിട്ടുണ്ട് വയറു വേദനയ്ക്ക് ആദ്യം നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് കട്ട തൈര് ആ തൈര് വെറുതെ കഴിക്കുക അല്ലെങ്കിൽ അതിൽ ചെ കുറച്ച് ഉപ്പ് ചേർത്ത് കഴിച്ചാലും കുഴപ്പമില്ലാ പിന്നല്ലേൽ കുറച്ച് കുരുമുളക് തൈരിന് മുകളിൽ വിതറിയിട്ട് കഴിച്ചാൽ നമുക്ക് ഉദര സംബന്ധമായ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും പിന്നെ രണ്ടാമതായി ഉപയോഗിക്കുന്നത് നമ്മൾ ആപ്പിൾ ഡിസൈഡർ വിനാഗിരി വയറുവേദനയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഒരു സ്പൂൺ ആപ്പിൾ ഡിസൈഡ് ഒരു വിനാഗിരി ചേർക്കും വിനാഗിരി ചേർത്തിട്ട് ഒരു ടൂ സ്പൂൺ തേനും ചേർത്ത് കഴിച്ചാലും മതിയാകും നമ്മുടെ വയറിന് ആശ്വാസം കിട്ടും പിന്നെ അതുകൂടാതെ നമ്മൾ ഇത് നാളികേരത്തിൻ്റെ വെള്ളം അതും കുടിച്ചാൽ നമുക്ക് അല്പം നേരം ആശ്വാസം കിട്ടും അത് ഒന്നോ രണ്ടോ ദിവസം കുടിക്കുന്നതിനും കുഴപ്പമില്ല നാളികേരത്തിൻ്റെ വെള്ളം നമ്മുടെ നാടൻ നാടൻ ഇളനീര് വെള്ളം അത് കുടിച്ചാലും നമുക്ക് വയറുവേദനയിൽ നിന്ന് ആശ്വാസം കിട്ടും പിന്നെയുള്ളതാണ് നമുക്ക് ഏത്തപ്പഴം ഏത്തപ്പഴം വെറുതെ കഴിക്കുക അത് കഴിച്ചാലും നമുക്ക് വയറിന് ആശ്വാസം കിട്ടും പിന്നെ നമ്മുടെ അമ്മമാർ പറയുന്നതാണ് പിന്നെ ചൂട് ഇളം ചൂടു വെള്ളത്തിൽ നാരങ്ങ പുളി നാരങ്ങ വെള്ളം കുടിക്കുക പുളി നാരങ്ങാ പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതും നമ്മുടെ വയറിളക്കത്തിന് വയറുവേദനയ്ക്കും ഉദരസംബന്ധമായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്നും ആശ്വാസം കിട്ടുന്നതിന് പിന്നെ ഈ നാരങ്ങ വെള്ളം ഉത്തമമാണ് എന്ന് നാട്ടുവൈദ്യന്മാരും നമ്മുടെ മുത്തശ്ശിമാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്